കല കര കൗശല ഉപഭോഗത്തിലെ ലഭ്യതയ്ക്ക് താങ്ങാനാവുന്ന വിലയ്ക്ക് നമ്മളുടെ നാട്ടില് സാധാരണയായി ഇതിൻ്റെയൊക്കെ മേളകൾ സാധാരണ നടത്താറുണ്ട് നമുക്ക് സാധനങ്ങൾ ലഭ്യത ഉറപ്പാക്കി കൊണ്ടുള്ള മേളകള് എങ്കിൽ ആ മേളകളില് ചില സമയങ്ങളില് വില കുറവായിരിക്കും എങ്കിലും അവരോരുവിധം ന്യായമായ വില അവരുടെ ഭാഗത്തു നല്ല രീതിയിൽ എടുത്ത് കൊണ്ടുള്ള വിലയാണ് ചീപ് റേറ്റ് അത്രയും ഇടാറില്ല

ഇതിനൊന്നും ലഭിക്കാറില്ല അങ്ങനെയുള്ള മേഖലകളില് കുറച്ച് കൂടി വിളക്കിഴിവുകൾ ലഭിച്ചാല് അത് പോലെയുള്ള സാധനങ്ങൾക്ക് കൂടുതല് വിറ്റഴിവ് വരികയും അതിനെ നമ്മൾ ജനങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാനും ആ സാധനങ്ങൾ വിറ്റഴിഞ്ഞ് അവരുടെ ജീവിതം സുരക്ഷിതമാകാനും ഈ മേഖലയിലുള്ളവർ കുറച്ച് കൂടി ശ്രമിച്ചാല് കുറച്ചും കൂടി ഇതിൻ്റെ ബിസിനെസ്സ് മുമ്പോട്ട് കൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളത് കൂടി ഇതിനകത്ത് വെയ്ക്കുന്നു